ആളുകളുടെ ജീവിത നിലവാരത്തെ മാറ്റുവാൻ വൈകുന്നേരങ്ങളിലുള്ള ചെറു കളികൾ അല്ലെങ്കിൽ വിനോദങ്ങളില് നമുക്ക് കൂടെ പറ്റും കാരണം ഒരു സ്ട്രെസ്സ് അനുഭവിച്ചൊരു വരുന്നൊരു വ്യക്തിയ്ക്ക് കുട്ടി ഇപ്പോൾ കുറച്ച് ദിവസം കുറച്ച് നേരം കുട്ടികളുടെ ഒപ്പം അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തുക്കളുടെ ഒപ്പമോ ഒരു ഗ്രൗണ്ടിലോ അല്ലെങ്കിലൊരു പാർക്കിലോ സമയം സ്പെൻഡെയ്യാതെ ഒരു ചെറിയ ഗെയിമ്കളിലൂടെ ആയാലും എങ്ങനെ ആയാലും അത് ആ ആൾക്ക് ഭയങ്കര ഒരു നല്ല രീതിയില് ആൾടെ ജീവിത നിലവാരത്തെ തന്നെ മാറ്റും കാരണം മൈൻഡ് ഫ്രീ സ്ട്രെസ് കോ റീലാക്സിഡ് ആവും അപ്പം ആളിൻ്റെ ജീവിത രീതി തന്നെ ഒരുപാടിതില് കൂളായി പോകുമ്പം തന്നെ മാറ്റങ്ങള് സംഭവിക്കും ജീവിത രീതിയില് കുറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും പിന്നെ ഈ ചെറിയ വിനോദങ്ങള് ഇപ്പോൾ കായികപരമായിട്ടുള്ള വലിയ കല കലകളിലായാലും ഇപ്പോൾ കായികത്തിൽ നിൽക്കുന്ന ഒരാൾ ഇപ്പോൾ ഫുഡ്ബോള് കളിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല രീതിക്ക് പ്രാക്റ്റീസൊണ്ട് നല്ല രീതിക്ക് കളിക്കാനുള്ള കഴിവ് എല്ലാം ഉണ്ടെങ്കിൽ ആൾടെ ജീവിതനിലവാരം മാറുവാണ് കാരണം ആൾടെയൊരു നാഷണൽ പ്ലയർ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് പ്ലേയറായി മാറും അപ്പം അവരുടെ ജീവിതനിലവാരം തന്നെ മാറും ഇതുപോലെ തന്നെയാണ് എല്ലാ കായികങ്ങളും സംഭവിക്കുക ഇപ്പം ഒരു ക്രിക്കറ്റ് പ്ലെയറായാലും അയാളിതിലേക്ക് മാറി കഴിഞ്ഞു വച്ചാൽ അയാളുടെ ജീവിതനിലവാരം മാറും പിന്നെ അയാൾടെ സാമ്പത്തിക രീതികൾ മാറും എല്ലാത്തിലും ഒരു വ്യത്യാസം കൊണ്ടുവരാൻ ഈ വിനോദങ്ങൾക്ക് സാധിക്കും